നമ്മുടെ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ആരോഗ്യപ്രശ്നങ്ങൾ എന്നു പറഞ്ഞാൽ പകർച്ച വ്യാധികളാണ് മഴക്കാലം ആരംഭിക്കുന്നതോടു കൂടി കൊതുകുകളുടെയും എലികളുടെയും ഒക്കെ ശല്യം കൂടിവരികയും പകർച്ചവ്യാധികളും ഡെങ്കിപ്പനികളോ പലവിധ അസുഖങ്ങളും അസുഖങ്ങളും വരുന്ന സാധ്യത കൂടുതലാണ് ചെയ്യുന്നത് പൊതുസ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടിനിൽക്കുകയും പ്ലാസ്റ്റിക്കിലും ചിരട്ട എന്നിവയിലൊക്കെ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ വളരുന്ന സാഹചര്യവും വളരെയേറെ കൂടുതലായിട്ടാണ് വരുന്നത്